ആ അതെ പറഞ്ഞോളു അ ആ ആയിക്കോട്ടെ എന്നായിരുന്നു ഡേറ്റ് പറഞ്ഞത് ഡിസംബറ് പതിനാലല്ലേ ഡിസംബറ് പതിനാലിന് ഇല്ല അന്നേ ദിവസം നമുക്ക് പരിപാടികളൊന്നൂല ആ ഓക്കെ അപ്പോൾ നിങ്ങൾ എപ്പോഴ്ത്തേക്കാ മുഹൂർത്തം കാര്യങ്ങളൊക്കെ നോക്കീട്ടുണ്ടോ മുഹൂർത്തം ആ ഓക്കെ അപ്പം നിങ്ങൾ ഒരു അര മണിക്കൂർ മുമ്പെങ്കിലും അമ്പലത്തിൽ എത്തീട്ടുണ്ടാവണം കാരണം ആ സമയത്ത് നമുക്ക് പിന്നെ വേറെ അനർത്ഥങ്ങളൊന്നും വരാൻ പാടില്ലാത്തോണ്ട് നേരത്തെ എത്താൻ പിന്നെ വധൂന്റേം വരന്റേം ആധാർ കാർഡും കാര്യങ്ങളും ഇവിടെ എത്തിക്കണം നമുക്ക് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായതുകൊണ്ട് അതൊക്കെ ഇവിടെ എത്തിക്കണം പിന്നെ തുളസി മാല മാത്രമേ നമുക്ക് ഇവിടെന്ന് തരുള്ളു പിന്നെ വേറെ വല്ല പൂമാലകളും ബൊക്കെ എന്തേലൊക്കെ വേണമെങ്കിൽ നിങ്ങൾ പുറത്തൂന്ന് മേടിക്കാ ആ താലി നമുക്ക് നേരത്തെ തലേ ദിവസം കൊണ്ടുത്തരണം ആ അത് പൂജയൊക്കെ നമ്മൾ ഇവിടെന്നന്നെ ചെയ്തോളാം ആ രജിസ്ട്രേഷനൊക്കെ നമുക്ക് ഇവിടെ വന്നിട്ട് ചെയ്താതി ആധാറ് കാർഡ് രജിസ്റ്റർ ചെയ്യുന്നതിന് നമുക്ക് സാക്ഷി ആ അതിപ്പോൾ നിങ്ങളാരേലും വധൂന്റേം വരന്റേം വീട്ടീന്ന് ഏതെങ്കിലും രണ്ട് പേര് മതി വേണ്ടാ വേണ്ടാ

ഓ ഇഷ്ട്ടം പോലെ നമ്മളിപ്പോൾ അതിന് വേണ്ടീട്ട് തന്നെ ഇവിടെ വേറെ ഇതൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് വേറെ ഓഡിറ്റോറിയം കാര്യങ്ങളൊക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്ത് തരും കേട്ടോ അതുകൊണ്ട് നിങ്ങളതൊന്നും ഓർത്ത് ഭയപ്പെടേണ്ട മണ്ഡപം നമ്മളിപ്പോൾ ചെ നമ്മൾടെ ഒരു അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ ആൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും പിന്നെ നിങ്ങക്ക് വേറെ അഡിഷണലായിട്ടെന്തെങ്കിലും ചെയ്യണന്നോ അങ്ങനെന്തേലുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് നോക്കിയതിന് ശേഷം നിങ്ങൾ ചെയ്തോളു ആ ആ ആ പതിനാലാന്തിയല്ലെ ആ

ആ എന്നാൽ നിങ്ങൾ വന്നോളു ആയിക്കോട്ടെ